ഹായ് ചേച്ചി ആ നമുക്ക് ഒരാറ് സെറ്റ് കാൻ ബെനാറസി സാരി വേണമായിരുന്നു ആ മാരേജ് മാരേജിന് വേണ്ടീട്ടാണ് അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മളൊരു ഇരുപത് ആ ഒരു റേറ്റാണ് ഉദ്ദേശിക്കണത് ആ അതെ അതെ അതെ അതെ അതെ അതെ ഇല്ല കുഴപ്പമില്ല നമുക്ക് ആ കുഴപ്പമില്ല നമുക്ക് നമുക്കതിനെപ്പറ്റി വലിയ അറിവില്ല അപ്പം അത് കാരണം ബെസ്റ്റായിട്ടുള്ളത് ഇരിക്കണം എന്തായാലും നല്ല റേറ്റ് ആ ക്വാളിറ്റി മോശം വരരുത് അതെ ആ കളറ് നമുക്ക് ആറെണ്ണം ഒരുമിച്ച് ഒരുപോലത്തെ കളറ് കിട്ടാരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരേ കളറിൽ ആ ഓക്കെ നമുക്ക് രണ്ട് മാസം സമയമുണ്ട് നമുക്ക് പയ്യെ രണ്ട് മാസത്തിനുള്ളിൽ കിട്ടിയാൽ മതി ആ ആ ജൂൺ ഒരു ടൈമൊക്കെ ആകുമ്പഴേക്കും കിട്ടിയാൽ മതി

ഓക്കെ ഓക്കെ

ആ പിന്നെ നിങ്ങടയിൽ വേറേതാ ആ വേറെതക്കെ ഇതിലുള്ള സാരികളുള്ളത് ബെസ്റ്റായിട്ട് ഓ ഓ ആ ആ

അതെ അതെ

ആ ആ അതും അതും നമുക്ക് ബൾക്കായിട്ടന്നെ കിട്ടില്ലേ ബൾക്കായിട്ട് നമുക്ക് എട് ആ നമക്കിതിൻറ്റൊപ്പം തന്നെ മതീ ഒന്നിച്ച് എട് ആ ഒന്നിച്ചെടുക്കാനാണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഞാനപ്പം ഒന്ന് നോക്കീട്ട് പറയാം ആ ഓക്കെ